വ്യത്യസ്ത തരത്തിലുള്ള പാരമ്പര്യവും വിശ്വാസവും മതങ്ങളൊക്കെയൊള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഇപ്പം ഇന്ത്യയിൽ തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏറ്റവും കൂടുതൽ മതങ്ങളുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങൾ സംസ്കാരം ഒക്കെയുണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള മതങ്ങളടങ്ങിയ ഒരു കൂട്ടമാണ് കേരളത്തിൽ താമസിക്കുന്നത് മുസ്ലീമുകൾ ഹിന്ദുക്കൾ ക്രൈസ്തവർ അങ്ങനെ വ്യത്യസ്ത വിഭാഗത്തിലുള്ളവർ ഇനിയും ദക്ഷിണേന്ത്യയിലോട്ടൊക്കെ പോവുകയാണെങ്കില് സിക്ക് ഒക്കെയുണ്ട് അപ്പോൾ ഇവരെല്ലാം ഓരോ വ്യത്യസ്ത തരത്തിലുള്ള പാരമ്പര്യങ്ങളും വിശ്വാസവും സാംസ്കാരികമായിട്ടുള്ള ഒക്കെ അവരുടേതെല്ലാം വ്യത്യസ്തമാണ് പക്ഷേ അവരെല്ലാം ഐക്യത്തോടെ തന്നെ ജീവിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓണം എന്നൊരു ആഘോഷം എല്ലാം മതങ്ങളിലുള്ള ആൾക്കാരും ഇന്ന് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇനിയും ഇന്ത്യയിലും അതുപോലെതന്നെ കേരളത്തിലും എല്ലായിടത്തും സ്ത്രീകൾ പൊതുവെ സാരിയാണ് സാരി ബ്ലൗസ് ആണ് അവരുടെ ഒരു പ്രധാന വേഷമായിട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ദേശിയ വസ് ദേശീയവസ്ത്രം സ്ത്രീകളുടെ നോക്കുകയാണെങ്കിൽ സാരി ബ്ലൗസ് ആയിരുന്നു അതുപോലെ പുരുഷന്മാരുടെ ആണെങ്കിൽ ഷർട്ട് മുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇനി സ്ത്രീകൾ പൊതുവേ സ്ത്രീകൾ പൊതുവേ മുല്ലപ്പൂ തലയിൽ ചൂടാറുണ്ട് അത് അവരുടെ ഒരു പാരമ്പര്യമായിട്ട് അവർ വെച്ചുകൊണ്ട് പോകുന്നതാണ് പണ്ടുമുതൽ സ്ത്രീകൾ മുല്ലപ്പൂ ഒക്കെ ചൂടിയ നല്ലൊരു ഐശ്വര്യമായിട്ടൊക്കെ കരുതുന്നുണ്ട് ഇനിയും നേ വളരെയധികം ചികിത്സാരീതിയിൽ പുരാതന ആൾക്കാർ പ്രത്യേകിച്ച് അവർ ആയുർവേദ ചികിത്സാരീതി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട് പ്രത്യേകിച്ച് അവർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആയുർവേദ ചികിത്സാരീതി വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് പലതരം ചേ ഔഷധസസ്യങ്ങൾ കൊണ്ട് അവർ ആയുർവേദ മരുന്നുകളുണ്ടാക്കുന്നുണ്ട് അതുപോലെതന്നെ ഇന്ത്യയിൽ ആയുർവേദത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്ക് കൊടുക്കുന്നുണ്ട് ഇനിയും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വൈവിധ്യമാർന്ന പലതരം ആഘോഷങ്ങളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണെങ്കിൽ നമ്മൾ ഓണം അതുപോലെ ക്രിസ്മസ് ഇനി മുസ്ലിമുകൾക്ക് വ്യത്യസ്തതരം പെരുന്നാളുകൾ ഒക്കെയുണ്ട് ഇനി ഹോളി പോലെയുള്ള ദക്ഷിണേന്ത്യയിലോട്ട് പോവുകയാണെങ്കിൽ ഹോളി ദീപാവലി അതുപോലെ അങ്ങനത്തെ മറ്റ് ആഘോഷങ്ങൾ ഇതെല്ലാം ഒരു വ്യത്യസ്ത സാംസ്കാരികവും പാരമ്പര്യങ്ങളിലൂടെയും വന്ന ആഘോഷങ്ങളാണ് ഹോളിയിലൂടെ മറ്റുള്ളവർക്ക് കളർ നിറങ്ങൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് എറിഞ്ഞ് ഒരു പ്രത്യേക തരം ആഘോഷം അവര് ആഘോഷിക്കുന്നുണ്ട് അതുപോലെ ദീപാവലിയിലെ ദീപം തെളിയിച്ചു കൊണ്ട് ഇതൊക്കെ അവരുടെ ഒരു പാരമ്പര്യത്തിലൂടെയും വിശ്വാ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആഘോഷങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമ്മുടെ ഈ വ്യത്യസ്ത ഇന്ത്യയിൽ ധാരാളം ഈ ആഘോഷങ്ങളും പാരമ്പര്യവും സാംസ്കാരികവുമൊക്കെ വളരെയധികം കൂടുതലായതുകൊണ്ടുതന്നെ മറ്റു രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഇവിടെ ഇന്ത്യ സന്ദർശിക്കാൻ ഒരു ആകാംക്ഷണയാണ് കാരണം അവരുടെ രാജ്യത്ത് കൂടിപ്പോയാൽ ഒരു കൂടുതൽ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ക്രൈസ്തവരായ ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ അവർ പ്രധാനവായിട്ടും ക്രിസ്മസ് ആണ് ആഘോഷിക്കുന്നത് അവരുടെ രാജ്യത്ത് ഓണം പോലെയുള്ള മറ്റ് കൂടുതൽ ദീപാവലി ഹോളി അതുപോലെ അങ്ങനത്തെ പെരുന്നാളുകൾ അതൊന്നും മറ്റ് യൂറോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഈ ആഘോഷങ്ങളും വൈവിധ്യങ്ങളും സാംസ്കാരികതയൊക്കെ കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നോണ്ട് തന്നെ പല വിദേശ ആൾക്കാരും ഇതുപോലെയുള്ള ആഘോഷങ്ങളുടെ സമയത്ത് നമ്മുടെ നാട് സന്ദർശിക്കുകയും നമ്മുടെ ഈ ആഘോഷത്തോടൊപ്പം പങ്കുചേരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഈ സാംസ്കാരിക പാരമ്പര്യങ്ങൾ വിശ്വാസങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളിൽ പേര് കേട്ടതാണ് ഇനി നമ്മുടെ ഈ പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലും തന്നെ ഭക്ഷണരീതി എടുക്കുകയാണെങ്കിൽ കേരളത്തിലാണെങ്കിൽ ചോറ് ചോറാണ് പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് കഴിക്കുന്നത് കറി കറിയാണെങ്കിൽ വളരെ കൂടുതൽ പച്ചക്കറികൾ അതായത് വളരെ മരുന്നുകൾ മ മഞ്ഞളിന്റെയും കുരുമുളകിൻ്റെയൊക്കെ ഉപയോഗം നല്ലവണ്ണം കൂട്ടിയിട്ടൊക്കെയുള്ള ഭക്ഷണരീതിയാണ് കേരളത്തിലോക്കെ ഉള്ളത് നമ്മൾ കേ മിക്ക ആളുകളും ഇപ്പോൾ ഹൈന്ദവ വിശ്വാസത്തിലുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് പച്ചക്കറികളാണ് മത്സ്യമാംസങ്ങൾ ഉപയോഗിക്കുമെങ്കിലും പച്ചക്കറികളാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അങ്ങനെ അവർ ഓണത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് സദ്യ പോലെയുള്ള ഒരു ഭക്ഷണ രീതിയൊക്കെ അവർ വയ്ക്കുമ്പോൾ അതിൽ ഒരു ആചാരം ഉൾപ്പെടുന്നുണ്ട് ഇലയിടുന്നതും അതുപോലെ ഓരോ സമയത്ത് ആദ്യം വിളമ്പുന്ന സദ്യ കറികൾ സദ്യയിൽ ആദ്യം വിളമ്പുന്ന കറികൾ ഇതൊക്കെ അവരുടെ ആ ഓരോ സം വിശ്വാസത്തിൻ്റെ പാരമ്പര്യവും അതിലുൾപ്പെടുന്നുണ്ട് ഇനിയും ദക്ഷിണേന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉരു ഉരുളക്കിഴങ്ങ് പോലെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ വരുന്നുണ്ട് അതുപോലെ പരിപ്പ് കറികൾ ഇതൊക്കെ ഇന്ത്യയിലെ ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ പിടിച്ചുവച്ചിരിക്കുന്ന ഒരിതാണ് ഇനി ഇഡലി സാമ്പാറൊക്കെയാണ് നമ്മടെ ഇന്ത്യയിൽ ഏറ്റവും ഏറ്റവും നല്ല ഒരു ആഹാര ക്രമീകരണമായിട്ട് ഇവിടത്തെ ആരോഗ്യ ശുശ്രൂഷകർ പറയുന്ന ഒരു ഭക്ഷണം അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഈ സാംസ്കാരികവും പാരമ്പര്യങ്ങളിലും വിശ്വാസങ്ങളിലൊക്കെ നമ്മുടെ ഭക്ഷണരീതിയും നമ്മുടെ ചികിത്സാരീതിയും നമ്മുടെ ആഘോഷങ്ങൾ രീതിയൊക്കെ ഉൾപ്പെടുന്നുണ്ട് അത് മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് ഇന്ത്യയെ വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു